നമസ്കാരം മേഡം ഇരിക്കൂ പട്ടുസാരി പട്ടുസാരിയിൽ നമ്മൾ ഇപ്പം കുറേ വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം ലേറ്റസ്റ്റ് കളക്ഷൻസ് പട്ടുസാരിയിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ഉണ്ട് പഴയ കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണ് വേണ്ടത് മേഡം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ് അല്ലേ ആ മേഡത്തിന് ഡാർക്ക് കളേഴ്സിന് ആണോ അതോ ലൈറ്റ് കളേഴ്സിന് ആണോ അതോ ഏതിനാണ് താൽപര്യം കൂടുതൽ

ഡാർക്ക് കളർ ഡാർക്ക് കളറിൽ ഏത് വേണം മേഡം ഗ്രീൻ ഗ്രീനിൽ തന്നെ നമുക്ക് ചെറുപയർ പച്ച ഉണ്ട് നമ്മൾ ചെടികളുടെ കളർ അങ്ങനെ ഏത് ഏത് കളർ ആണ് മേഡത്തിന് കൂടുതൽ ഇഷ്ടം കടും നിറത്തിലുള്ള പച്ച അല്ലേ ഉം റെഡ് ബോർഡർ വരണോ ഓക്കെ ഓക്കെ മേഡത്തിന് ഇത് മതിയോ എന്ന് നോക്കൂ ഇതിൻ്റെ വേറെ കളക്ഷൻസ് ഉണ്ട് മേഡം നമ്മൾ എടുത്തുതരാം ഇതായാലോ മേഡം ആ ഇത് ഒന്ന് മേഡം ഓർത്ത് വെച്ചോളൂ വേറെ എടുത്തുതരാം ഓക്കെ മേഡം ഇത് അതിൻ്റെ കുറച്ച് കൂടി വെറൈറ്റി പീസ് ആണ് ഇത് എങ്ങനെ ഉണ്ട് മേഡം കുറച്ച് കൂടി ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഉടുത്തോണ്ട് പോകാം പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോകാനും ഫംഗ്ഷൻസിന് ഒക്കെ കൂടുതൽ അട്ട്രാക്റ്റീവ് ആയിരിക്കും ആ ഓക്കെ ആ ആ ഓക്കെ മേഡം അത് പിന്നെ ഇത് ഇവിടെ നമ്മൾ ജ്വല്ലറി കളക്ഷനും ഉണ്ട് എന്താണ് സ്റ്റോൺ സ്റ്റോൺ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആണ് മേഡം അത് പണ്ടത്തെ ഒരു ടൈപ്പ് ആണ് ഇപ്പം സ്റ്റോണിൽ ഒന്നും കാര്യം ഇല്ല ഇപ്പം ലൈറ്റ് വെയ്റ്റ് ഫുൾ പട്ട് പോലെയുള്ള സംഭവങ്ങളാണ് വരുന്നത് മേഡത്തിന് സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ വെച്ച് തരാം വെയ്റ്റ് കൂടുതൽ ആയിരിക്കും പ്ലെയിൻ സാരിയോ പ്ലെയിനിൽ ആ പ്ലെയിൻ ആണ് ഇപ്പം കൂടുതൽ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നത് ഓക്കെ ഇത് എങ്ങനെ ഉണ്ട് മേഡം ഇത് കുറേ കുറേ കൂടി വെറൈറ്റി പീസ് ആണ് കളറും അടിപൊളി ആണ് മേഡത്തിന് നന്നായിട്ട് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിട ട്രയൽ റൂം ഉണ്ട് മേഡം ഒന്ന് നോക്കിയിട്ട് ഒന്ന് എന്താണ് പറഞ്ഞത് സ്കൈ ബ്ലൂവോ ഓക്കെ തീർച്ചയായിട്ടും തരാം ഏതാണ് മേഡം നോക്കൂ ഓക്കെ ഓക്കെ

ജെൻറ്റ്സിൻ്റ സെക്ഷൻ ഇവിടെനിന്ന് റൈറ്റിലോട്ട് പോയാൽ അവിടെ ഉണ്ടാവും മേഡം പോവാം നമുക്ക് പോവാം ഞാൻ തന്നെ വരാം മേഡം

ഓക്കെ മുണ്ട് നമ്മൾ ഇപ്പം കമ്പനി എം സി ആർ രാംരാജ് അങ്ങനെ ഉള്ള കമ്പനി വേണോ അതോ നോർമൽ മതിയോ ആ സാരമില്ല നമുക്ക് കോട്ടൺ ടൈപ്പ് എടുക്കാം മേഡം അകം ആ ഇത് എങ്ങനെ ഉണ്ട് മേഡം ഇത് നല്ലൊരു കരയാണ് ഇത് സ്വർണ്ണ കസവ് വേണോ അത് ആ ഗോൾഡൻ കളർ ഉള്ള അപ്പോൾ ഏത് വേണെങ്കിലും യൂസ് ചെയ്യാം ഷേർട്ട് ആയാൽ അല്ലേ ഇത് നോക്കൂ മേഡം ഇതിനുതന്നെ മാച്ച് ആയി നമുക്ക് ഒരു ഷേർട്ടും കൂടി നോക്കിയാലോ ഓക്കെ ഏത് കളർ ആണ് മേഡത്തിന് കൂടുതൽ താൽപര്യം ഓക്കെ ബ്ലൂ ഇത് എങ്ങനെ ഉണ്ട് മേഡം സൈസ് എത്രയാണ് ഓക്കെ ഇതാ ഇത് നോക്കൂ മേഡം ഓക്കെ ആ ആ തീർച്ചയായിട്ടും ഇത് ഗോൾഡൻ കളർ ആവുമ്പം എല്ലാം മാച്ച് ആവും ആ മേഡത്തിന് സാരി എടുത്ത് ജ്വല്ലറി കളക്ഷന് നമ്മുടെ ബോട്ടീക്ക് തന്നെ താഴെ ഉണ്ട് അവിടെ പോയി ചോദിച്ചാൽ മാച്ചിംഗ് ജ്വല്ലറി കിട്ടും

ഓക്കെ ചുരിദാർ വല്ലതും നോക്കുന്നുണ്ടോ മേഡം ടോപ്പ് ഇപ്പം ട്രെൻഡി ട്രെൻഡി ടോപ്പ് ഓക്കെ ജീൻസ് ഒക്കെ ലേഡീസിന് ഉള്ളത് ഉണ്ട് മേഡം റീസണ റീസണബിൾ പ്രൈസ് ആണ് നമ്മൾ ഓണം ഓഫർ ഒക്കെ ഉണ്ട് ഇപ്പം എടുത്താൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും

ഓക്കെ വേറെ എൻ വേറെ എന്തെങ്കിലും മേഡം ഓക്കെ താങ്ക്യൂ മേഡം